ഹലോ ഞാൻ വിമലാ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ നേരത്തെ ഒരു ഫുഡ് ബുക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന സ്വിഗ്ഗിയിൽ കൊടുത്തിരുന്ന വിലാസം തെറ്റായിരുന്നു ഞാൻ മുമ്പേ താമസിച്ചിരുന്ന സ്ഥലത്തുള്ള വിലാസമായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്കത് കോളേജ് അഡ്രസ്സിലോട്ട് മാറ്റണം അപ്പം ഞാനിപ്പം ചെയ്ത ഓർഡർ പ്രകാരം നിങ്ങൾ വീട്ടിലേക്കായിരിക്കും ഫുഡ് ഡെലിവറി ചെയ്യേണ്ടി വരിക അപ്പോൾ എൻ്റെ സ്ഥലത്തേക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനെന്താ ചെയ്യേണ്ടത് ഞാനാപ്പിലൊരുപാട് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ അതിലൊന്നും ഒരോപ്ഷനൊന്നും കണ്ടില്ല അപ്പം ഞാനൊരുപാട് നേരമായി തിരയുന്നു അപ്പം ഞാൻ വിളിച്ച് ഇതിലേക്ക് അന്വേഷിക്കാമെന്നു വിചാരിച്ചു ഞാൻ അൽഫാമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അപ്പം എനിക്ക് വീട്ടിലേക്ക് കിട്ടിയിട്ടത് കാര്യമില്ല ഞാൻ നിങ്ങളുടെ അൽഫാം നല്ല ടേസ്റ്റുള്ളത് കൊണ്ടാണ് ഞാനാവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഇതിനു മുൻപേ ഞാനൊരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഡെലിവറി അഡ്രസ് ഞാൻ കൊടുത്തിരുന്നത് എൻ്റെ വീട്ടിലായിരുന്നു പക്ഷേ ഞാനിപ്പം കോളേജിലാണുള്ളത് എനിക്ക് കോളേജിലെ അഡ്രസ്സ് വേണം അതിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളത് എനിക്ക് കോളേജിലെ അഡ്രസ്സിലോട്ടത് മാറ്റണം അപ്പം ഞാൻ ആപ്പിൽ കയറി എന്തെങ്കിലും ചെയ്താൽ മതിയോ അതോ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടാണോ സംസാരിക്കേണ്ടത് എനിക്കിപ്പം ഹോട്ടലിലെ നം നമ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളു അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിലെ നമ്പറിലേക്ക് വിളിച്ചു സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഓർഡർ ചെയ്തിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് ഞാനത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി അങ്ങനെ ഒരു ഇത് മാറ്റാൻ അഡ്രസ്സ് മാറ്റിക്കൊടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണീ പ്രശ്നം വന്നത് അപ്പം ഇത് മാറ്റാനൊരു ഓപ്ഷനോ ഒരു ഇതും സെറ്റിങ്ങ്സും ഞാൻ ആപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെനിക്കൊന്നു പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹോട്ടലിലേക്ക് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഡെലിവറിക്ക് വരുന്ന ആളോട് പറയാമോ അതൊന്ന് എൻ്റെ മറ്റേ വിലാസത്തിലേക്കെത്തിക്കാൻ വേണ്ടി നിങ്ങക്ക് പറയാൻ പറ്റുമോ കാരണം എനിക്ക് വേറെ സ്ഥലത്ത് കിട്ടിയിട്ട് കാര്യമില്ല എൻ്റെ വീട്ടിൽ കിട്ടിയിട്ട് കാര്യമില്ല കാരണം വീട്ടിലാരുമില്ല ഇപ്പോഴെൻ്റെ കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാനീ അൽഫാം ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം ഭക്ഷണം വേസ്റ്റായി പോകരുതല്ലോ അതുകൊണ്ട് നിങ്ങളെന്തെങ്കിലും മാറ്റാനൊരു വഴിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നെനിക്ക് പറഞ്ഞു തരുമോ ഓ താങ്ക് യു